ആണല്ലോ ആണല്ലോ ആണല്ലോ എന്താ സാറേ വേണ്ടിയേ ചെറുപുഷ്പം ചെറുപുഷ്പം ഫ്രൂട്ട് സ്റ്റാൾ

ആ അതേ അതെ ആ ആ അതിന് ആ ആ ഹാ ആ ആ ആ എന്തൊക്കെയാണ് സാറെ വേണ്ടിയത് ആ ആ ആ ആ ആ അ അ ആ എത്തിക്കാം നമ്മുടെ ഡെലിവറി ബോയുണ്ട് പയ്യന് ബൈക്കിനങ്ങ് കൊണ്ടു വന്നോളും വരും ലൊക്കേഷൻ ലൊക്കേഷനൊട്ടിട്ടാൽ മതി ആ അതാ ചെയ്തു തരും ചെയ്തു തരും എന്തൊക്കെയാണ് വേണ്ടിയതെന്നു പറ എത്ര കിലോ വെച്ചു വേണമെന്നു പറഞ്ഞാൽ അത് എന്റെ എന്റെ കടയിൽ ജാക്ക് ഫ്രൂട്ട് രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ നാടന് ജാക്ക് ഫ്രൂട്ടുണ്ട് പിന്നേ ആ റെഡ് കളർ ഉള്ളത് ഉണ്ടല്ലോ അത് അതും ഉണ്ട് രണ്ട് രണ്ട് ടൈപ്പുണ്ട് അതേതാണ് വേണ്ടിയത് ആ അ ആ റെഡ്ഡിന് ആ ഏ നാടന് നാടന് കിലോ കിലോ എഴുപത്തഞ്ച് രൂപ മറ്റേത് നൂറ്റിയൻപത് രൂപയാകും കിലോ എത്ര കിലോ വെച്ച് വേണമെന്നു പറഞ്ഞോളൂ ആ അ ആ മാമ്പ മാമ്പഴമുണ്ട് ആപ്പിളുണ്ട് മാമ്പഴം മല്ഹോത്രയുണ്ട് നമ്മുടെ നാടൻ മാമ്പഴവുമുണ്ട് എല്ലാ ഐറ്റം മാമ്പഴത്തിന്റെ എല്ലാ ഐറ്റവുമുണ്ട് എല്ലാം നല്ല പഴുത്ത് അല്ലാതെ നമ്മൾ കാര്ബൈഡ് വെച്ച് പഴുപ്പിച്ചതൊന്നും അല്ല നല്ല ഒറിജിനല് പഴുത്തതാണ് പഴുത്ത സാധനമാണ് അതെ നമ്മൾ അവിടെ തമിഴ്നാട്ടിൽ നമുക്ക് തോട്ടമുണ്ട് അവിടെ നിന്നു കൊണ്ടു വരും കൊണ്ടു വരുന്നതാണ് നമുക്ക് തമിഴ്നാട്ടില് തോട്ടമുണ്ട് അല്ലാ നമ്മളവിടെ കൃഷി ചെയ്യുന്ന നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നതാണ് അത് ഇവിടെ നിന്ന് ഒരു നമ്മൾ ചുങ്കപ്പാറ തിരുവല്ലയാണ് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിനുള്ളില് അങ്ങെത്തിക്കാം ഞാന് ആ ആ അപ്പോള് തന്നെ ഒരു മണിക്കൂറിനുള്ളില് സാധനം വീട്ടിലെത്തും ഏതൊക്കെ വേണമെന്നു വാട്ട്സ്അപ്പ് ചെയ്താൽ മതി വിലയും ബില്ലും ഗൂഗിള് പേ ചെയ്താൽ മതി അപ്പോഴേ സാധനം അങ്ങെത്തും ആ ആ ആടെ കൊടുത്തു വിട്ടാലും മതി അങ്ങനെ ചെയ്യാം ആ ആകാം ആ ആ ആയിക്കോട്ടെ ആ ഓക്കെ താങ്ക് യൂ